ഹലോ മാം ഗുഡ് മോണിംഗ് ഗുഡ് മോണിംഗ് മാം മാം ഞാന് ഞാന് റ്റെന് എയില് പഠിക്കുന്ന ആല്വിൻ അനിലിന്റെ അമ്മയാണേ വിളിക്കുന്നത് ആ ഹ് അതെ അതെ ആ സുഖായിട്ടിരിക്കുന്നു മാമിന് എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ ആ മ്മ് ആ കുഴപ്പമില്ല കുറച്ചൊക്കെ ഉഴപ്പുണ്ട് വായിക്കാനൊക്കെ മടിയാണ് എന്നാലും പഠിച്ചോളും കുഴപ്പമില്ല ഉം ഇത്തിരി ഉറക്കം ഇളച്ചൊക്കെ ഇരിക്കാന് ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടെന്നെ ഉള്ളു കുഴപ്പമില്ല മ് പിന്നെ ഞാന് വിളിച്ചത് മാം നമ്മള് ഇന് അവന്റെ ക്ലാസ് ടീച്ചര് അനിത മിസ്സ് പറഞ്ഞിട്ടാണേ ഞാന് വിളിക്കുന്നത് അപ്പം ഞാന് ഞാ റ്റെന് റ്റെന് എയില് പഠിക്കുന്ന പഠിപ്പിക്കുന്ന അനിതാ മിസ്സ് അവന്റെ ക്ലാസ് ടീച്ചറ് അനിതാ മിസ്സ് ആ മ് മിസ് എന്നോട് മിസ്സ് ഞങ്ങള് ഞാൻ എന് അവന്റെ പപ്പാ വന്നിട്ടുണ്ട് ഇപ്പം ലീവിന് അപ്പം ഞങ്ങള് ഫാമിലി എല്ലാവരും കൂടൊരു ടൂറിന് പോകാനൊരു പരിപാടിയിട്ടാരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ ഇച്ചിരി പരിപാടികൾ ഉണ്ട് ആ ആ അത് അവന് അത്യാവശ്യം ആയത് കൊണ്ടാണ് ര ഒരു മൂന്ന് ദിവസത്തെ പരിപാടിയെ ഉള്ളു അപ്പോൾ ഒരു ദിവസം അതിനകത്ത് ആ അപ്പം ആ ഇല്ല ഇല്ല അപ്പം ര അതിലൊരു ഒരു ദിവസം രണ്ട് ദിവസം അവധിയാണല്ലോ അപ്പോൾ അതും കൂടെ കൂട്ടിയാൽ ഞാന് പറഞ്ഞത് ഒരു നാല് ദിവസത്തെ ടൂറും രണ്ട് ദിവസം അവധി കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഞാന് ആ രണ്ട് ഞങ്ങൾക്ക് നാല് ദിവസത്തെ ലീവാണ് വേണ്ടത് ആ ആ ആ ആ ആ അതെ ആ മ് ആ ഓക്കെ മാം മിസ്സെനിക്ക് മനസിലാകുന്നുണ്ട് ഇല്ല എക്സാമൊന്നും മിസ്സ് ചെയ്യത്തില്ല അവ ഇവരെല്ലാരും കൂടെ വന്നത് കൊണ്ട് ഞങ്ങള് ഫാമിലി എല്ലാവരും കൂടൊന്നു കൂടുന്നത് കൊണ്ടാണെ എന്നാൽ കൊണ്ടു പോയേക്കാം എന്ന് വിചാരിച്ച് ഞാന് ഞങ്ങള് സാറ്റർഡേ പോകുവാണെങ്കിൽ സാറ്റർഡേ സണ്ഡേ പിന്നെ മണ്ഡേ തുടങ്ങി ഒരു നാല് ദിവസം അതെ നാല് ദിവസം നാല് ദിവസം മണ്ഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേസ്ഡേ ഫ്രൈഡേ ഞാന് ക്ലാസ്സില് വിട്ടേക്കാം അവനെ ആ ആ പഠിച്ചോ പ പ ശ്രദ്ധിച്ചോളാം ഞാന് വീട്ടില് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അവന് ഇടയ്ക്ക് ഒരു ട്യൂഷൻ ഉള്ളത് കൊണ്ട് മാക്സ് കവറ് ചെയ്ത് പോകും പിന്നെ ലാംഗ്വേജ് അവന് പ്രശ്നമില്ല പിന്നെ ഉള്ള പ്രശ്നം എന്നാൽ ഇച്ചിരി ഉം ആ തീർച്ചയായിട്ടും ആ ആ മി ആ ആ ആ അവന്റെ ഫ്രണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടല്ലൊ താമസിക്കുന്നുണ്ട് അപ്പോൾ ഞാന് വ അവനോട് ചോദിച്ച് നോട്ട് ഒക്കെ എഴുതി എടുക്കാന് പറഞ്ഞോളാം ത് തീര്ച്ചയായിട്ടും തീര്ച്ചയായിട്ടും ടീച്ചറിന്റെ അടുത്ത് സം സബ്മിറ്റ് ചെയ്തേക്കാം ആ അപ്പം ഓ താങ്ക്യൂ മിസ്സേ താങ്ക്യൂ അപ്പം പിന്നെ വേറെ എന്തുണ്ട് വിശേഷ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ആ ആ ആ തീര്ച്ചയായിട്ടും തീര്ച്ചയായിട്ടും ഓക്കെ താങ്ക്യൂ താങ്ക്യൂ ആ കണ്ടോളാം കണ്ടോളാം